വിദ്യാഭൃാസ വ്യവസായത്തിൽ ടെക്നോളജീസ് കുട്ടികളെ വളരെ നല്ല രീതിയില് എന്തു ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് പ്രതൃേകിച്ച് കൊറോണയുടെ ടൈമിലൊക്കെ വന്നപ്പം ഓണ്ലൈന് ക്ലാസ്സെസ് വഴി എന്താണ് നല്ല യൂസ്ഫുള് ആയിട്ട് ക്ലാസ്സൊക്കെ എടുക്കാന് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ യൂടൃൂബ് പിന്നെ ഓണ്ലൈന് കോച്ചിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി എന്താണ് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്താണ് മെറ്റീരിയല്സ് കിട്ടാനും ഒക്കെ കൂട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇന് കേസ് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫേര്ദറായിട്ട് കാര്യങ്ങൾ പിന്നെ എന്താണ് സെര്ച്ച് ചെയ്യാന് ഒക്കെ എന്താണ് ഓണ്ലൈന് മീഡിയാസ്സ് വഴി കൂട്ടിക്കള്ക്ക് എളുപ്പത്തിൽ സാധിച്ചിട്ടുണ്ടായിയിരുന്നു